മത്സ്യബന്ധനം പഠിച്ച ഒരാളല്ല ഞാൻ കുട്ടിക്കാലം മുതൽ മത്സ്യബന്ധത്തിനു പോകുന്നവരും അല്ലായിരുന്നു പിന്നെ പടിഞ്ഞാറൻ പ്രദേശത്ത് അമ്മവീടുള്ളതിനാൽ ഉള്ളതിനാലും പുഴയോരത്ത് താമസിച്ചിരുന്നതിനാലും അന്നത്തെ മുതിർന്ന ആൺകുട്ടികൾ ചൂണ്ട ഇടുന്നത് കണ്ടിരുന്നതിനാലും ഞാനും ഒരു ചൂണ്ടുമായി മറ്റേ ചോറോ ചെറിയ എന്തെങ്കിലൊക്കെ പ്രാണികളെയോ ഇരയായിട്ട് മത്സ്യബന്ധനത്തിന് ചുമ്മാതെ പോയിട്ടുണ്ട് അതിനകത്തുനിന്ന് വളരെ കുറച്ചു മീനുകൾ മാത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാലും കൂട്ടുകാരൊത്തും ആങ്ങളമാരൊത്തുമൊക്കെയുള്ള ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നത് ജീവിതത്തിലൊരു വലിയ ഹരമായിരുന്നു ഒഴിവു സമയങ്ങളിൽ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരു സ്വഭാവ അന്നത്തെ ആൺകുട്ടികൾക്കുള്ളതുകൊണ്ട് ഞങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടിയിരുന്നു വലിയൊരു ആഹ്ളാദത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഒരു അവസരമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് എന്നാൽ പുതു തലമുറയ്ക്ക് അതിനോടുള്ള താൽപര്യം വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ വേണം പറയുവാൻ പുതുതലമുറയിലെ മാതാപിതാക്കൾ കുട്ടികളെ ഇങ്ങനെ പുഴയോരത്തോ തോട്ടിറമ്പിലോ ഒന്നും മീൻ പിടിക്കാൻ വിടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലും കുട്ടനാടുകളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെ ഇപ്പോഴും ഈ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നരും അല്ലെങ്കിൽ വലവീശി മീൻ പിടിക്കുന്നവരുമൊക്കെയാണ് അങ്ങനെ പിടിച്ചെടുക്കുന്ന മീനിൻ്റെ സ്വാദ് എന്നു പറയുന്നത് ഒന്ന് പറഞ്ഞറിയിക്കാൻ മേലാത്തത് തന്നെയാണ് അതിനകത്ത് വരുന്നൊരു മാനസിക തൃപ്തിയും തൃപ്തിക്കും വളരെ പ്രാധാന്യമുണ്ട്